ഹലോ ഹലോ ആ അതെ പറഞ്ഞോളൂ ആ ഉണ്ട് സാർ ഇന്ന് ഓണത്തെ അതായതുകൊണ്ട് ഓണായാതൊണ്ട് നമ്മൾ ഫുഡങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്

ഞങ്ങളിവിടെ വൺ എയ്റ്റിയാണ് ചാർജ് ചെയ്യുന്നത് ഫുള്ളിന് ഹാഫാണെങ്കിൽ വൺ ട്വന്റി ഉണ്ട് സാർ ക്വാണ്ടിറ്റി ഉണ്ട് ഓ ഡെലിവറി ഉണ്ട് സർ അപ്പോൾ എത്രപേർക്കുള്ള ഇതാണ് വേണ്ടത് പതിനഞ്ച് പേർക്കുള്ളതാണല്ലേ ആ ഓക്കെ ചിക്കൻ ആണല്ലേ നാല് സദ്യ ആ ഓക്കെ സർ അറേഞ്ച് ചെയ്യാം സദ്യക്ക് നമ്മളിപ്പോൾ വൺ സിക്സ്റ്റി ആണ് ചാർജ് ചെയ്യുന്നത് കറികൾ ഒരുപാടുണ്ട് സാർ ഇപ്പോൾ നമുക്ക് സദ്യയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കറികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സിക്സ്സ്റ്റിക്കുള്ള ഇതുണ്ട് സാർ ഡെലിവറി ചാർജ് കാര്യമായിട്ട് പറഞ്ഞത് കൊണ്ട് നമുക്കെന്തേലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും സാറേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരാം എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് മീനങ്ങാടി ആ ഓക്കെ ആ ഇത് കല്പറ്റയാണ് ബൈപാസ്സ് ഡെലിവറി ഉണ്ട് സർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആ അതും വെക്കാം സർ നാല് ലിറ്റർ ല്ലേ രണ്ട് ലിറ്ററിൻ്റെ രണ്ട് ക്യാൻ വെച്ചാൽ പോരെ സാറ് ആ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ മതി സാർ

ഓക്കെ സർ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് എത്തിച്ചേക്കാം